ഹലോ അതെ എന്തേ അല്ല നല്ല ഡിസൈൻ ഉണ്ട് നമ്മൾ പഴയത് പഴയ ഷോപ്പിലോട്ടാണ് പോവൽ കണ്ണൻസിലേക്ക് ആ പിന്നെ ഈട പുതിയൊരു ഷോപ്പ് ഉണ്ടല്ലേ

മോഡേൺ ഡ്രസ്സ് നമ്മള ഈട പുതിയതായിട്ട് ഒരു ഷോപ്പ് ആയിന് കല്ല്യാൺ കല്ല്യാൺ സിൽക്സിൽ പോവുക കല്ല്യാൺസിലുണ്ടാവും ഉം കല്ല്യാൺ സിൽക്സ് ഉണ്ടെന്ന് പറഞ്ഞ് പോവുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കളക്ഷൻ ഉണ്ട് നല്ല കളക്ഷൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായി പിന്നെ വേറെ വേറെ ഇത് അതൊന്നും എനിക്കറിയില്ല പക്ഷേ നല്ലതുണ്ടെന്ന് പറഞ്ഞ് കേട്ടിന് പറഞ്ഞ് കേട്ടിന് ഞാൻ അങ്ങനെ പോയിട്ടില്ല പിന്നെ ഒരു റിസയുണ്ട് ആട പോവലുണ്ട് അങ്ങനെ റിസ റിസ ഇത് റിസ ആ ആട പോവലുണ്ട് ഉം അല്ല തുണി നല്ലതുണ്ട് പിന്നെ അവിടെ കല്ല്യാൺസിൽ നല്ലതുണ്ട് പറഞ്ഞു ഞാൻ എല്ലാം നല്ലതുണ്ട് ആ പിന്നെ വേണമെങ്കിൽ വില എല്ലാം കുറച്ച് ബൾക്ക് കളക്ഷൻ ഉണ്ട് പറഞ്ഞു കല്ല്യാൺസിൽ ഉം പിന്നെ നിങ്ങൾ നോക്ക് ആ ഏട കല്ല്യാൺസിലോ കല്ല്യാൺസിൽ ഇപ്പോൾ പോയി ഇത് നല്ലതുണ്ട് കളക്ഷനും നല്ലതുണ്ട് ഒരു ആദിത്യ ഇല്ലേ എടാ ആദിത്യയിലുള്ളത് നല്ലതുണ്ട് അല്ല അത് നമ്മൾ നിങ്ങളെ ഇത് ഇത് സെലക്ട് ചെയ്യുന്നതല്ലേ സെലക്ട് ചെയ്യുന്നുണ്ട് ആല്ല കുഴപ്പമില്ല ഇല്ല അതെ പക്ഷേ അത് എന്താണ് അറിയുമോ ക്വാളിറ്റി നല്ലതാണ് റേറ്റ് കൊടുത്തിനെങ്കും ക്വാളിറ്റി കുറച്ച് നല്ലതുണ്ട് ആ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ